ആളുകളുടെ ജീവിത നിലവാരത്തെ മൊത്തമായി സ്വാധീനിച്ചത് കളികൾക്ക് സ്വാധീ കളികൾക്ക് സാധിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ നാട്ടിലൂടെ കളിച്ചു വരുന്ന ഓരോരോ കളികളും ചില കളികളൊക്കെ ഇൻ്റർനാഷണൽ ലെവലിൽ മത്സരങ്ങളിലൂടെ നല്ല നിലയിൽ എത്താൻ ശ്രമിക്കുമ്പോൾ അത് നമ്മുടെ ജീവിത നിലവാരത്തെ മൊത്തമായി നൻ നല്ലതുപോലെ സ്വാധീനിക്കാൻ കഴിയും അതായത് ഉദാഹരണത്തിന് ഫുട്ബോൾ തന്നെ എടുത്താൽ നമ്മൾ നാട്ടിൽ നമ്മുടെ ഗ്രൗണ്ടിൽ കൂട്ടുകാരുമൊത്ത് കളിക്കുന്നതും അതേസമയത്ത് സ്കൂൾ സ്കൂളുവഴി മുൻപോട്ട് കയറി സെലെക്ഷൻ ലഭിക്കുകയും സെലക്ഷൻ ലഭിക്കുന്നതോടെ അനുസരിച്ച് സബ് ജില്ലാ ലെവലിൽ ഇൻ്റർനാ ഡിസ്ട്രിക്ട് ലെവൽ പിന്നെ സ്റ്റേറ്റ് ലെവൽ അങ്ങനങ്ങനെ കയറി കയറി ഇൻ്റർനാഷണൽ ലെവൽ വരെ എത്തി ഹാ നമുക്ക് വിജയം നേടാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് അതിലൂടെ നമ്മുടെ കരിയർ കരിയറിൽ നല്ലൊരു നി നിലവാരം സ്വാധീനിക്കാൻ ഫുട്ബോളിന് കഴിയും അത് തന്നെയാണ് അതുപോലെ തന്നെ ഫുട്ബോൾ മാത്രല്ല ക്രിക്കറ്റ് മറ്റ് പല ഗെയിംസും നമ്മൾ നാട്ടിലൂടെ കൂട്ടുകാരുമൊത്ത് രസകരമായി ഫ്രണ്ട്ലിയായി കളിക്കുന്നതും അതേ സമയത്ത് അതൊക്കെ കായികപരമായി മത്സര ഇനങ്ങളില് പങ്കെടുത്ത് കളിക്കുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് ആദ്യം പറഞ്ഞ രീതിയിലാണെങ്കിൽ അത് നമ്മുടെ ജീവിത നിലവാരത്തെ ഒരു രസകരമായ രീതിയിൽ മാത്രം മാത്രമല്ല നല്ല നല്ല അനുഭവങ്ങളിലൂടെ അനുഭവങ്ങളും കുട്ടിക്കാലത്തെ അനുഭവങ്ങളും മാത്രമാണ് തരുന്നത് മറ്റ് രണ്ടാമത്തെ കാര്യത്തിൽ പറയുമ്പോൾ അത് ജീവിതത്തിൻ്റെ നിലവാരത്തെ മൊത്തമായി നല്ല രീതിയിൽ സ്വാധീനിക്കാൻ കളികളെക്കൊണ്ട് കഴിയുന്നുണ്ട്